പണ്ടെടുത്ത ഫോട്ടോകള് ഉണ്ടോന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ ഉണ്ട് പണ്ട് എൻ്റെ ഫോട്ടോസ് കുറെ എടുത്തിട്ടുണ്ട് അതൊക്കെ ഇപ്പഴും എന്റെ കയ്യിലുണ്ട് പിന്നെ ഇപ്പത്തെ ഫോട്ടോയും പഴയ ഫോട്ടോയും വച്ച് നോക്കുന്നുണ്ടെങ്കിൽ പഴയ ഫോട്ടോയ്ക്ക് ഒരിത് ഉണ്ട് അതായത് നമുക്കൊരു എപ്പോഴും നമ്മക്കൊരിഷ്ടം പഴയ ഫോട്ടോനോടായിരിക്കും അതായത് നമുക്ക് നമ്മളെ പഴയതായിട്ട് കാണുന്നത് തന്നെയായിരിക്കും എല്ലാവർക്കും ഇഷ്ടം അപ്പം നമ്മുടെ പഴയ ഫോട്ടോസായിരിക്കും കൂടുതൽ എല്ലാവർക്കും ഇഷ്ടം പക്ഷേ ഏറ്റവും കുഴപ്പം എന്താ എന്തേലും ഡിഫറെൻസ് ഉണ്ടോന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പത്തെ ഫോട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക ഭയങ്കര ക്ലാരിറ്റി ഉള്ളതും ഭയങ്കര വെളിച്ചവും അങ്ങനത്തേക്കെ പണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോസൊക്കെ ആയിരുന്നു അതുപോലെ തന്നെ ഭയങ്കര ക്ലാരിറ്റി ഒന്നും ഉണ്ടാവില്ല ഭയങ്കര ബ്ലർ പോലെ ഒക്കെയായിരിക്കും അങ്ങനെ അത്ര ക്ലിയർ ഒന്നും ഉണ്ടാവില്ല അങ്ങനെ ഒക്കെയാണ് ഇപ്പത്തേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ക്ലാരിറ്റിയും ക്ലിയറൊക്കെ ഉണ്ടാകും അപ്പം അതും ഇതും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് പക്ഷെ എല്ലാവർക്കും കുറച്ചുംകൂടി ഇഷ്ടം കൂടുതല് പഴയ ഫോട്ടോകളോടായിരിക്കും നമ്മളെ എല്ലാവർക്കും ചെറുതായിട്ട് കാണുന്നത് അല്ലങ്കിൽ ചെറുപ്പത്തിൽ കാണാനായിരിക്കും എല്ലാവർക്കും നമ്മളോട് ഒരിതുണ്ടാവുക അപ്പം എല്ലാവർക്കും അങ്ങനെയായിരിക്കും നമുക്ക് പഴയതായിട്ടുള്ള കാര്യങ്ങളോടൊരു കുറച്ച് കൂടുതല് അടുപ്പം തോന്നും പഴയതിന് പഴയതായ കാര്യങ്ങളോടൊക്കെ അപ്പോൾ അങ്ങനെ ഒക്കെ നോക്കുമ്പോൾ പഴയ ഫോട്ടോ തന്നെയാണ് നല്ലത് ഇപ്പത്ത നല്ലതല്ലാന്നല്ല എന്നാലും പഴയതിനോടായിരിക്കും കുറച്ചും കൂടെ കൂടുതലിഷ്ടം